ഹലോ ആരായിരുന്നു

ആരായിരുന്നു വിളിച്ചത് കേൾക്കത്തില്ലല്ലോ ശെരിക്കും തിരിയുന്നില്ലല്ലോ

അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വേണം എത്ര കിലോമീറ്റർ ചുറ്റളവിൽ വേണം അൻപത് മീറ്റർ അടുത്ത് കിട്ടുകയില്ല തൊട്ടടുത്ത് തന്നെ ഒത്തിരി അകലമില്ലാതെ കിട്ടാനുള്ളൂ

വീടില്ലാത്ത സ്ഥലം വേണോ വീട് വേണോ മ് മ് മ് മ് ആ എത്ര റൂമൊക്കെ വേണം

ആ അത്യാവശ്യം ജീവിക്കാൻ പരുവത്തിനുള്ളത് ആ മ് വേണം വെള്ളം ഇല്ലാത്തത് ആണോ വെള്ളം വേണോ മ് വെള്ളം പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ടായിരുന്നു മ് ആ ഇല്ലെങ്കിൽ കുഴൽക്കിണർ കുത്തണം ആ സൗകര്യമുള്ള വഴികളാണ് അ ആ വണ്ടി വരുന്നതാണ് അതല്ലേ സൈഡ് ആണെന്ന് പറഞ്ഞത്

അത് നിങ്ങളുടെ സൗകര്യമെന്നാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആം എനിക്ക് എപ്പം വേണെലും സൗകര്യമുണ്ട് നിങ്ങളുടെ സൗകര്യം നോക്കി പറഞ്ഞാൽ മതി മ് വേറൊരു കുഴപ്പമില്ല ആം എട്ട് മണിയാണ് ആ അമ്പലത്തിനടുത്തേക്ക് വന്നേരെ അവിടെ അടുത്ത് തന്നെ അ അ ആ വരും മ് വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഉം ആ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി സെന്ററിന് എൺപത് അത് എന്നൊക്കെ കച്ചവടമല്ലേ അന്നേരം നടക്കുവായിരിക്കും ആ മ് ആ അത് നമുക്ക് ഇടപെട്ട് നോക്കാം ഉം താമസം പണിതേ ഉള്ളു വീട് ഒത്തിരിയായില്ല പണിതിട്ട് ആ ആ ടൗണിൽ നിന്ന് ഒത്തിരി ദൂരമില്ല ആ സ്കൂളൊരു ഇരുന്നൂറു മീറ്റർ ഉം ഗവണ്മെൻറ് സ്കൂളാണ്

ആ പറഞ്ഞുകൊള്ളാം

ശരി